ഹെലോ ഇത് ജെസി തിരുവാ ർ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങ് ആൻഡ് ടെക്നോളജീസ് ആ അതെ പറയു അതേലെ ആ ആ ഓക്കെ ഓക്കെ സ്ഥലം എവിടെയാണ് ഷൊർണ്ണൂർ ആണല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹോസ്റ്റലാണോ അതോ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഡെയിലി പോയി വരലോ ഓക്കെ ഓക്കെ ഞങ്ങളുടെ വൺ ഓഫ് ദ ബേസ്റ്റ് ക്യാമ്പസാണ് അതായത് തമിഴ് നാട്ടിലുണ്ട് പിന്നെ കേരളത്തിലുണ്ട് അതായത് നെഹ്റു ഗ്രൂപ്പ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയതന്നാണ് അപ്പോൾ ബി ടെക് ആൻഡ് എൻജി ഏതാന്ന് ബി ടെക് ഓക്കെ ഓക്കെ

അതേലെ ഓക്കെ അപ്പോൾ നിങ്ങളെ എസ് എസ് എൽ സി പ്ലസ് ടു അങ്ങനുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ ഫോട്ടോസ് ഒരു ആറ് ഫോട്ടോ വേണം പിന്നെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി വേണം പിന്നെ എക്സാം എഴുതിയതിൻ്റെ ഉള്ള റിസൾട്ട് ഷീറ്റ് വേണം പിന്നെ യൂ ജി ഇപ്പോൾ ഡിഗ്രി ഇൻകം സർട്ടിഫിക്കറ്റ് ആ ഞാൻ അത് ഒന്നൂടി എന്തായാലും വാട്സപ്പിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം എന്തൊക്കെയാണ് വേണ്ടേന്നുള്ളത് പിന്നെ കൂടുതലെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഡ്മിഷൻ ഡെസ്ക് അതായത് ഹെല്പ് ലൈൻ ആയിട്ട് വേറെ സുരേഷ് സാറെന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് അപ്പോൾ ആൾടെ കുറച്ചൂടെ ഡീറ്റൈലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് തരും ആസ് എ പ്രിൻസിപ്പൽ തുടങ്ങീട്ടിണ്ട് ബി ടെക്കിന് ഇപ്പോൾ ഒരു അറുപത് സീറ്റാണ് പറയുന്നത് ആ ആ പിന്നെ ആ അങ്ങനെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾടെ മാർക്കിൻ്റെ ബേസിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും പിന്നെ ഫീസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ ഇയർസല്ലേ അപ്പോൾ ആ അപ്പോൾ ഒരു ത്രീ ലാക്ക്സ് ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ടോട്ടല് ആ അതെ അതെ അതെ ആ അപ്പോൾ കൾച്ചുറല എല്ലാ പ്രോഗ്രാമും ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ആയിക്കോട്ടെ എല്ലാം ഫ്രഷേഴ്സ് ഡേ ക്രിസ്മസ് എല്ലാം നമ്മളുടെ കോളേജിൽ അടിപൊളിയായിട്ട് തന്നെയാണ് എല്ലാം നടത്താറുള്ളത് ഞങ്ങൾക്ക് ആ നമ്മളത്രയും കൾച്ചുറലായിക്കോട്ടേ സ്പോർട്സായിക്കോട്ടേ എല്ലാത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കുട്ടികളെല്ലാത്തിലും പങ്കെടുക്കണമെന്നുള്ള രീതിക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫേക്കൽട്ടീസ് ആയിക്കോട്ടേ നല്ല രീതിയിൽ നല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സ്റ്റാഫുകളൊക്കെയാണ് പഠിപ്പിക്കുന്നതും എല്ലാം

എൻ സി സി ഇൻ എൻ എസ് എസ് എൻ സി സി ഉണ്ട് ആ അപ്പോൾ അതിലൊന്നും ഇൻറ്ററെസ്റ്റഡായിട്ടൊള്ളവരാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നൂല്ല ആ ഓക്കെ അ നേരിട്ട് ഓഫീസില് വന്നാലും മതി ഓഫീസില് വന്നഴിഞ്ഞ് ഒരു വേറെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്ത് ഫോട്ടോ ഒക്കെ കൊടുത്തേ പിന്നെ ഇപ്പോൾ ക്യാഷ് എങ്ങനെയാണ് അടക്കുന്നത് വന്ന് ഓക്കെ അങ്ങനെയാണല്ലെ ഓക്കെ ഓക്കെ ആ സെം വൈസ് അടച്ചാൽ മതിയാവും

ആ എല്ലാം ഓക്കെ ഓക്കെ താങ്ക്സ് ഓക്കെ